എൻറെ അടുത്തൊരു ഗെയിമിങ്ങ് പ്ലാറ്റ്ഫോമോ അഥവാ അതായത് ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ടുള്ള ഗെയിമിങ്ങ് പ്ലാറ്റ്ഫോമോ ഗെയിമോ നിർമ്മിക്കാൻ പറഞ്ഞാൽ ഞാൻ ഒരു കൊച്ചുകുട്ടികൾ പല രീതിയിലുള്ളത് ഒരു ഗെയിമിൽ തന്നെ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പല ലെവൽ അതായത് ഒരു തീരെ പൊടി കുട്ടികൾക്ക് പറ്റുന്ന ഒരു സെക്ഷൻ കിഡ് സെക്ഷൻ പിന്നെ ഇത്തിരി കൂടെ പ്രായമുള്ള കുട്ടികൾക്ക് പറ്റുന്ന വേറെ അടുത്ത സെക്ഷൻ പിന്നെ ഏറ്റവും ടോപ്പ് വലിയ വലിയ കുട്ടികൾക്ക് പറ്റുന്ന ഒരു സെക്ഷൻ അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും ഒറ്റ ഗെയിം ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതാവുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും ആ ഗെയിം എല്ലാവരിലോട്ടും എത്തി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു സാധ്യതയുമുള്ള രീതിയിലായിരിക്കും കാരണം എല്ലാ പല പല ഗെയിമും പല പല ഇതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും നല്ലത് എല്ലാവർക്കും കൂടെ പറ്റിയ ഒരു ഗെയിം ആണെങ്കിൽ എല്ലാവരും ആവശ്യം പോലെ ആൾക്കാർ അത് യൂസ് ചെയ്യുവേം ടോപ്പ് ലെവലിൽ എത്തുകയും ചെയ്യും അങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ടുള്ള നല്ലൊരു ഗെയിം തന്നെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ എല്ലാവരുടെയും ഒപ്പീനിയൻ എല്ലാം നോക്കിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗെയിം അതായത് പാതി ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കാർ റേസിങ്ങ് ബൈക്ക് റേസിങ്ങ് റേസിങ്ങ് ഗെയിംസ് ആണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെയുള്ളത് നോക്കും ചെയ്യാൻ ശ്രമിക്കും അല്ലാതെ ആക്ടിവിറ്റി രീതിയിലുള്ളത് എന്തെങ്കിലും ആണെങ്കിൽ ആ രീതിയിലുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് രീതിയിലോട്ട് ആണെന്ന് നോക്കും ഗെയിം കളിക്കുന്നത് കുട്ടികളാണോ വലിയവരാണോ അഡൾട്ട് ആയിട്ടുള്ള നോർമൽ ആൾക്കാരാണോ അങ്ങനെ നോക്കും അങ്ങനെ പല എല്ലാവർക്കും പറ്റിയ ഒന്ന് രണ്ട് രീതിയിലുള്ള ഒക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് രീതിയിലുള്ളത് അങ്ങ് ചെയ്യും അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള നല്ല സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ന ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏത് ഉണ്ടോ അതുതന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്